ഭാവിയിൽ മലയാള ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ മികച്ച ഒരു ഇതൊന്നും നമുക്ക് മലയാളം ഭാഷയിൽ പുറം രാജ്യങ്ങളിലൊന്നും കിട്ടുകയില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഈ മലയാള ഭാഷ ഒരുപാട് മെച്ചപ്പെടുത്താം പുതിയ വേർഡുകൾ കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് പക്ഷേയിത് കേരളത്തിന് പുറത്തു പോയാൽ ഒരു കോമ്മൺ ഭാഷയായി ഉപയോഗിക്കാൻ പറ്റുമോ എന്നത് ഡൗട്ട് തന്നെയാണ് പക്ഷേ ഇന്ന് ലോകത്തെവിടെ പോയാലും ഒരു മലയാള ഭാഷ പറയുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇതൊരു കോമ്മൺ ഭാഷയാക്കേണ്ടത് ഈ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പോലെത്തന്നെ ഇവിടെ എവിടെപ്പോയാലും ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെത്തന്നെ നമുക്ക് മലയാള ഭാഷയും അങ്ങനെ ആക്കിയാൽ ഭാവിയിൽ വളരെ ഉപകാരപ്പെടും അതിപ്പം മലയാളികൾ ആയാലും പുറത്തുള്ള ആളുകളായാലും പുറത്ത് മലയാളം ലാംഗ്വേജ് പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒന്നുതന്നെയാണ് അപ്പോൾ നമ്മുക്ക് ഈ മലയാളം പഠിച്ചു പോയാൽ തന്നെ പുറം രാജ്യങ്ങളിൽ വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല ഈ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തവരുണ്ടാകും അവർക്ക് നല്ലൊരു അഡ്വാന്റേജ് തന്നെയാണ് ഈ പുറം രാജ്യങ്ങളിൽ മലയാളം എന്നത് പഠിപ്പിക്കുന്നതെന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ മലയാളം പറയുന്നത് കുറഞ്ഞു വരികയാണ് അതാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് ആയി കാണാൻ കഴിയുന്നത് ഈ കേരളത്തിൽ വരും തലമുറകൾ മാറിമാറി വരുന്തോറും ഭാവി ഭാവികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്തോറും മലയാളം ഭാഷ പറയുന്നവരുടെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഉള്ളത് പറഞ്ഞാൽ കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും കോളേജുകളും ഭൂരിഭാഗം കോളേജിലെത്തിയാൽ ഫുൾ ഇംഗ്ലീഷ് തന്നെയായിരിക്കും മലയാളം വേർഡ് ഈ വളരെ കമ്മിയാണ് അതുകൊണ്ടുത്തന്നെ മലയാളം ഉപയോഗിക്കുന്നവരുടെ പറയുന്നവരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് പക്ഷേ അയാൾക്ക് മലയാളി എന്ന പേര് തന്നെ ഉണ്ടാകും കേരളത്തിൽ ജനിച്ചതുകൊണ്ട് പക്ഷേ മലയാളം ഭാഷ പഠിക്കേണ്ടത് ഒരു അനിവാര്യം തന്നെയാണ് കേരളത്തിൽ ജനിച്ചു മലയാളം ഭാഷ അറിഞ്ഞ് അറിയില്ല എന്നു പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒന്നു തന്നെയാണ് ഇത് നമുക്ക് മോശമായ ഒന്നുതന്നെയാണ് ആണ് ഒരാൾ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് കേരളത്തിൽ നിന്ന് പുറത്തുപോയി അയാൾ ഏത് ലാംഗ്വേജാണെന്ന് ചോയിച്ചാൽ ഇംഗ്ലീഷ് പക്ഷേ നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഭാഷ തന്നെ പറയണം അത് മലയാളം തന്നെയായിരിക്കണം പക്ഷേ അത് നടന്നിട്ടില്ലെങ്കിൽ വളരെ മോശമായ ഒന്നുതന്നെയാണ്